കൂടുതൽ ദിവസം ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ ചെടികളെ ഇട്ടേച്ച് ഞാൻ പോകുന്നത് അപ്പം ഞാൻ ഇവിടെ മുറ്റം അടിക്കാൻ ഒരു പെണ്ണ് വരാറുണ്ട് അവൾ അവളെ ഞാൻ ഏൽപിക്കും എൻ്റെ ചെടികളെല്ലാം അവൾ ഞാൻ പോയിട്ട് വരുന്നിടം വരെ ചെടിക്ക് വെള്ളമൊഴിക്കുകയും നോക്കുകയും എല്ലാം ചെയ്യാറുണ്ട് എനിക്ക് അത്രയ്ക്ക് ചെടികളോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾക്ക് ഞാൻ കൊറ ആ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിന് അവൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസ മുറ്റം അടിക്കുന്നത് കൂടാതെ ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്യും അപ്പം അവൾ നല്ല രീതിയിൽ തന്നെ ഞാൻ എവിടെപ്പോയാലും അവൾ വന്ന് ആ ചെടി നോക്കുകയും അതിനെ പരിപാലിക്കുകയും വെള്ളം ഒഴിക്കുകയും ഇനി അഥവാ എവിടെയെങ്കിലും വാടി കിടക്കുവാണെങ്കിൽ അവളത് കുഴിച്ചു വച്ച് അതിന് അതിനകത്ത് വെള്ളമൊഴിച്ച് അത് നിവർത്തിയിട്ടേ അവൾ പോവുള്ളൂ അവൾ എനിക്ക് അത്ര എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ് എനിക്കിഷ്ടം അതുപോലെതന്നെ അവളെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അവളും അതുപോലെ തന്നെ ചെയ്യും എല്ലാ ചെടികളും അതുകൊണ്ട് ഞാൻ വരുമ്പോഴും ഞാൻ പോകുന്നതുപോലെ തന്നെ നിൽക്കും ചെടികളെല്ലാം